എനിക്ക് കഴിവുണ്ടോന്ന് ചോദിച്ചാൽ നല്ല രീതിയിലുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണമെന്തെന്ന് വച്ചാല് ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുന്നൊരു ആളാണ് അപ്പോൾ എനിക്ക് വര ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാന് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വീട്ടിലുള്ള ഭിത്തികളിലും അല്ലാണ്ട് പേപ്പറുകളിലും ബുക്കുകളിലും ഇങ്ങനത്തേതിലൊക്കെയാണ് വരയ്ക്കുക ഞാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ പഠിക്കാൻ ഒന്നും പോയിട്ടില്ല അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് വരയ്ക്കുന്നതല്ലാണ്ട് വലിയ രീതിയിലുള്ള മത്സരങ്ങളില് ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള മത്സരങ്ങളിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള ഇപ്പം സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും അങ്ങനെയുള്ള ലെവലിൽ ഒന്നും ഞാൻ വലിയ രീതിയിൽ ഒന്നും പങ്കെടുത്തെട്ടൊന്നുമില്ല അപ്പം ചെറിയ രീതിയിൽ ഒക്കെ വരയ്ക്കും അങ്ങനത്തെ ശേഷികൾ ഒക്കെയുണ്ട് അപ്പം ഞാൻ അത് നല്ല രീതിയിൽ വികസി വികസിപ്പിച്ചട്ട് എടുക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക പ്രത്യേക കഴിവുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം